നാട്ടിൽ നടക്കാറുള്ള കായിക ഇനങ്ങൾ വരുമ്പോള് എല്ലാ വിധത്തിലും ആദ്യമേ തന്നെ ആ മത്സരത്തിൻ്റേതായ നിബന്ധനകൾ എപ്പോഴും നല്കാറുണ്ട് നല്കിയതിന് ശേഷം മാത്രമേ മത്സരങ്ങളിലേക്ക് പേരുകളെടുക്കുകയോ അവരെ മത്സരിപ്പിക്കുകയോ ചെയ്യാറുള്ളു ആ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുന്പും കഴിവുള്ള എല്ലാ നിബന്ധനകളും ഒന്നും കൂടെ നിയമങ്ങൾ അതിൻ്റെ നിബന്ധനകളെല്ലാം കൃത്യമായി അവരെ ഓര്മിപ്പിച്ചതിന് ശേഷം മത്സരത്തിലേക്ക് കടക്കുക കടത്താനായിട്ടാണ് ശ്രദ്ധിക്കാറുള്ളത് അതുകൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അക്രമങ്ങളും കുറയ്ക്കുവാനായിട്ട് കഴിവുള്ള വിധത്തിലെല്ലാം സാധിക്കാറുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം അത് ഏത് തരത്തിലുള്ള കായിക ഇനം എടുത്താലും ഇവിടെ നടത്താറുള്ള മത്സരങ്ങളിലെല്ലാം നേരെത്തെ തന്നെ അതിന്റെ കറക്റ്റ് ആയ നിബന്ധനകള് നിയമങ്ങള് അവരെ അറിയിക്കാന് പരിശ്രമിക്കാറുണ്ട് എന്നിരുന്നു വച്ചാൽ പോലും ചില മത്സരങ്ങള്ക്ക് ഇടയില് പ്രശ്നങ്ങൾ അല്ലെങ്കില് ആക്രമണ ങ്ങൾ നടക്കാന് അക്രമമായി നടക്കാന് ചാന്സില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ വാക്ക്തങ്ങൾളക്കെ എത്തിച്ചേരാറുണ്ട് എപ്പോഴുമില്ല എങ്കില്പ്പോലും ചില അവസരങ്ങളില് മാത്രം ആ അവസരങ്ങളില്ലാം അത് ആ ഒരു മത്സരത്തെ മാത്രം കൃത്യമായ് വീക്ഷിക്കല് അല്ലെങ്കിൽ ആ മത്സരത്തിന്റെ ഇന്ന കാര്യം നോക്കാനായിട്ട് ഒരു വ്യക്തിയെ അടുത്ത കാര്യം നോക്കാന് അടുത്ത വ്യക്തിയെ മറ്റൊരു കാര്യം നോക്കാന് അടുത്ത വ്യക്തിയെ അങ്ങനെ പലതായി നിയമിക്കുകയാണെങ്കില് അത്രയും നല്ലത് ആയിരിക്കും തോന്നുന്നു അപ്പം ഒരാൾക്ക് തന്നെ എല്ലാ എല്ലാം ശ്രദ്ധിക്കാന് പോകുമ്പോള് അത് ചില സമയങ്ങളിൽ ചിലപ്പോൾ വിട്ടു പോകാനായിട്ട് സാദ്ധ്യതകള് കൂടുതലാണ് അപ്പോൾ ഒരു കാര്യം ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കില് മറ്റൊരു കാര്യം മറ്റൊരാളിലേക്ക് ശ്രദ്ധ കൊടുക്കുയാണെങ്കില് അവര്ക്ക് ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാല് മതിയാവും എന്ന് തോന്നുന്നു അപ്പം ആ രീതിയിൽ ഓരോരുത്തരെ ഓരോ കാര്യങ്ങളേല്പ്പിച്ച് ആ മത്സരത്തെ ഏറ്റവും ഭംഗിയായി വിജയകരമായി കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കാറായിള്ളതാണ് ഞാന് കാണാറുള്ളത് കറക്റ്റായി ശരിയായ നിബന്ധനകള് നിയമങ്ങള് നല്കി ഒരു മത്സരം നടത്തുമ്പോള് അതില് പ്രശ്നങ്ങള് വാക്ക് തർക്കങ്ങൾ വരുന്നത് വളരെ നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ വളരെ വലിയ മത്സരങ്ങളാണ് വലിയ വലിയ ടീമുകളെ ഇറക്കി നടത്തുന്ന മത്സരങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന്റേതായ സൗകര്യങ്ങൾ കാര്യങ്ങൾ അവിടെ സജ്ജീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം വലിയ ടീമുകൾ വലിയ കാശു മുടക്കി നടത്തുന്ന മത്സരങ്ങള് ചെറിയ ചെറിയ കാര്യങ്ങളല്ല വലിയ മത്സരങ്ങളായിട്ട് വരുന്ന കാര്യം സമയങ്ങളിലൊക്കെ കൂട്തലും നമ്മൾ നല്ല ജഡ്ജിമാരെ ഇറക്കി നല്ലെ ടീമുകളെ ക്രമീകരിച്ച് അതിന്റെ കാര്യങ്ങൾ ശരിയാക്കി അ അതോടോപ്പം തന്നെ നല്ല ക്യാമെറ ഫെസിലിറ്റീസൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജ്ജീകരിക്കാന് സാധിക്കുമെങ്കില് അങ്ങനെ ക്രമീകരിച്ച് അതിന്റെ നിയമങ്ങൾ തെറ്റിക്കാനായി തെറ്റിക്കുന്നുണ്ടോ അത് കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരോരുത്തരെ ഏല്പ്പിച്ച് കാര്യങ്ങൾ നല്ല പോലെ ചെയ്യുമ്പോള് എല്ലാ വിധത്തിലും അത് വിജയകരമായി ഇവിടെ നിന്ന് നാട്ടില് നടന്ന മത്സരങ്ങളൊന്നും തന്നെയും ആക്രമണങ്ങളിലേക്ക് അല്ലെങ്കിൽ അക്രമണത്തിലേക്ക് എത്തിയതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ചെറിയ ചെറിയ വാക്കു തര്ക്കങ്ങള് അത് പറഞ്ഞാൽ അതുപോലെ മനസ്സിലാക്കി അല്ലെങ്കിൽ കാണിച്ച് കൊടുത്ത് പറഞ്ഞ് ശരിയാക്കി അല്ലെങ്കിൽ നിബന്ധനകളിന്നതായിരുന്നു എന്ന് നിങ്ങള് ശ്രദ്ധിച്ചിരുന്നില്ലെ എന്ന് നിയമങ്ങളിതല്ലെ എന്നുള്ള രീതിയിൽ സംസാരിച്ച് കാര്യങ്ങള് തീര്ക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനാൽ ഒരിക്കലും ആ ആക്രമിത്തിലേക്ക് എത്താനുള്ള വഴി എത്താനുള്ള വഴികൾ അല്ലെങ്കിൽ മത്സരങ്ങൾ വരുമ്പോൾ അതിൻ്റേതായ എല്ലാ ക്രമീകരണങ്ങളും ഒരു സജ്ജമാക്കിയാണ് ആ ഒരു മത്സരം നടത്താറുള്ളത് ആയതിനാല് അക്രമത്തിലേക്ക് കഴിവതും എത്തിക്കാതെ നല്ല രീതിയില് വിജയകരമായ മത്സരങ്ങൾ എത്തിക്കുവനായിട്ട് കഴിവതും ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ആയതിനാല് കൃത്യമായ നിബന്ധനകൾ അവരെ അറിയിക്കുക മത്സരത്തിന് മത്സരം ഇങ്ങനെ ഒരു മത്സരം നടത്തുന്നുണ്ട് എന്നറിയുമ്പോൾ തന്നെ അവര്ക്ക് കൃത്യമായി ആ മത്സരത്തിന്റെ നിയമങ്ങളും നിബന്ധനകളും കാര്യങ്ങളും കൃത്യം കൃത്യമായി അവരുടെ ഇന്നത് വേണ്ടി ഇന്നത് ഉണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ അവസരം നല്കാതെ അവര്ക്കുള്ള സംശയങ്ങളെല്ലാം തീര്ത്ത് കൊടുക്കുന്ന രീതിയിൽ തന്നെ എല്ലാ നിയമങ്ങളും നിയന്ത്രണ നിബന്ധനകളും ഇറക്കുകയാണെങ്കില് ഇറക്കി കാര്യങ്ങള് ചെയ്യുകയാണെങ്കില് അവിടെ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങള് ഏറെക്കുറെ നമുക്ക് കുറയ്ക്കാന് സാധിക്കും പിന്നെ ആ മല്സരത്തിനിടയ്ക്ക് നടക്കുന്ന ചില പോയിന്റുകൾ അല്ലെങ്കിൽ ചെറിയൊരു കാര്യങ്ങൾ വച്ച് മാത്രം പ്രശ്നങ്ങളുണ്ടാകാന് സാധ്യതകളേ ഉള്ളു ആ അതും നമ്മളാല് കഴിയിന്നതും ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു പോവുകയാണെങ്കില് ആ പ്രശ്നങ്ങള് അവിടെ കുറയുന്നതായിട്ട് തോന്നിക്കാറുണ്ട്